ചെറുപ്പക്കാലം മുതൽ ഡ്രോയിങ്ങ് വളരെ ഇഷ്ടമായിരുന്നു തുടങ്ങിയത് വീടിൻ്റെ ചുമരിലും അങ്ങനെയൊക്കെ വരച്ച് തുടങ്ങിയതാണ് എപ്പോഴാണ് തുടങ്ങിയത് നേരെ ഓർക്കുന്നില്ല എന്നാലും ഞാൻ യു കെ ജിയോ എൽ കെ ജിയോ പഠിക്കുന്ന സമയങ്ങളിലാണ് ചുമരിലൊക്കെ വരച്ചു തുടങ്ങി പിന്നെ പിന്നെ ഞാൻ നല്ല സ്കൂളിലൊക്കെ ചേർന്ന ശേഷം മെല്ലെ മെല്ലെ വരച്ച് തുടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസിലൊന്നും പോയിട്ടില്ല ഡ്രോയിങ് ക്ലാസിലൊന്നും പോയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഞാൻ തന്നെ വരച്ച് തുടങ്ങി പിന്നെ സ്കൂളിൽ പൊതുവെ ഒരു ഒരു പിരീഡ് ഡ്രോയിങ് പിരീഡുണ്ടാകും അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ ആ ഡ്രോയിങ് പിരീഡിലും വരക്കും പിന്നെ പിന്നെ പഠിച്ച്പഠിച്ച് വരച്ച് വരച്ച് അന്നൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങളിലാണ് തുടങ്ങുന്നത് നമ്മൾ പക്ഷിയോ ഈ നമ്പർ വെച്ച് പക്ഷിയെ വരയ്ക്കുന്നത് അങ്ങനത്തെയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ ടീച്ചേർസ് പഠിപ്പിച്ചത് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ പിന്നെ ഞാൻ തന്നെ വരച്ച് തുടങ്ങി വീട്ടിൽ വന്നപ്പോൾ വരക്കാനും അങ്ങനെ ഒക്കെ വരച്ച് വരച്ച് കുറെ കുറേ കഴിഞ്ഞ് ഒരു അഞ്ചാം ക്ലാസൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വര ഒക്കെ ആയി എന്നിട്ട് കുറെ പെയിൻറ്റൊക്കെ വാങ്ങി നമ്മൾ അമ്മയോട് എൻ്റെ അമ്മയോട് ഞാൻ വാശി പിടിച്ച് കുറെ ഓയിൽ പാസ്റ്റൽസും അങ്ങനത്തെ ക്രയോൺസും സ്കെച്ച് പെന്നും കൂടുതൽ വാങ്ങി വരക്കാൻ തുടങ്ങി അങ്ങനെയാണ് വരച്ച് തുടങ്ങിയ ശേഷം ഒരു ദിവസം ഞാൻ നാലഞ്ച് വരച്ച് ഇങ്ങനെ പുസ്തകത്തിൻ്റെ ഇടയിൽ വെച്ചു പുസ്തകത്തിൻ്റെ ഇടയിൽ വെച്ച ശേഷം അത് ഞാൻ മറന്നു മറന്ന് അത് സ്കൂൾ ബുക്കായിരുന്നു വെച്ച ശേഷം ഇങ്ങനെ സ്കൂൾ പോയ ശേഷം ഏതോ ഒരു സബ്ജെക്ട് മാക്സാണെന്നു തോന്നുന്നു ആ സബ്ജെക്ടിന് ഞാൻ ബുക്ക് തുറന്നപ്പോൾ സാറിൻറ്റെ അടുത്ത് പോയി ബുക്ക് തുറന്നപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് നിലത്ത് വീണു നിലത്ത് വീണ ശേഷം സാർ കണ്ട് ഞെട്ടിപ്പോയി എത്ര മാനോഹരമായ ചിത്രങ്ങളാണ് അനിരുദ്ധ് എൻ്റെ പേര് അനിരുദ്ധ് എന്നാണ് അപ്പോൾ അവർ എന്നെ പ്രശംസിച്ചു യു ആർ ഗ്രേറ്റ് നല്ല ചിത്രമാണ് അനിരുദ്ധ് കീപ്പ് ഇറ്റ് അപ്പെന്നൊക്കെ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡായിട്ടായിരുന്നു അത് സംഭവിച്ചത് അതിനു ശേഷം ഞാൻ ചിത്രം വരക്കുക പോട്ടറേറ്റൊക്കെ വരക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ അതൊരു പ്ലസ് വൺ ഒക്കെ ആകുമ്പോൾ ആണ് ഞാൻ പോട്ടറേറ്റ് വരച്ചത് രണ്ട് മൂന്ന് പേരുടെ പോട്ടറേറ്റൊക്കെ വരച്ച് കൊടുത്തു അവന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ദിവസം ഇങ്ങനെ വരച്ച ഒരു ചിത്രമായിരുന്നു എന്തോ കണ്ട് വരച്ച ഒരു എന്തോ ഓർത്ത് വരച്ച ചുമ്മാ വരച്ച ഒരു ചിത്രമായിരുന്നു പിന്നീട് ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ ഇതിനെന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു മീനിങ് ഉണ്ടായിരുന്നു കുറച്ച് പ്രായം കൂടിയപ്പോൾ ആണ് മനസ്സിലായത് എന്തോ അഘാതമായ ഒരു മീനിങ് ഉണ്ട് ശാന്തതയുടെ ഒരു ചിത്രമായിരുന്നു ഞാൻ വരച്ചത് അന്ന് ചെറുപ്പത്തിലാണ് വരച്ചത് പക്ഷേ വലുതായി ശേഷം നോക്കുമ്പോൾ ആന്ന് മനസ്സിലായത് ഓ ഇതിന് ഇത്രയൊക്കെ അർത്ഥം ഉണ്ടായിരുന്നല്ലേ ഞാൻ അന്ന് വരക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന് അപ്പം ആണ് ഓർത്തത് ഒരു ശാന്തതയുടെ ഒരു സീനറിയോ അങ്ങനെ എന്തോ ആയിരുന്നു വരച്ചത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അങ്ങനെയാണ് പിന്നീട് ഞാൻ ഡിഗ്രിയിൽ ഒരാളുടെ ചിത്രം വരച്ച് അദ്ദേഹത്തിന് കൊടുത്തു അത്രയേ അവിടെ തന്നെ ഞാൻ ചിത്രം വരയ്ക്കുന്നത് നിർത്തിയായിരുന്നു പിന്നീട് അത്ര ഞാൻ ചിത്രത്തിനെ കുറിച്ച് ആലോചിച്ചില്ല ഇപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ വരക്കാറില്ല അത്രയേ ഉള്ളു വരയ്ക്കുന്നത് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ആലോചിക്കും വരച്ചാലോ പക്ഷേ അന്നുണ്ടായ ഒരു ആ ഒരു ഉന്മേഷവും ഇൻറ്റെറെസ്റ്റും ഇപ്പോൾ എനിക്കില്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാറുമില്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുമില്ല അങ്ങനെ ചിത്രം വരയ്ക്കുന്നത് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു